ഞാൻ ഇപ്പോൾ ജീവിതത്തിന് എന്തിനാണ് ഏറ്റവും കൂടുതൽ വിലകൽപ്പിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് കൂടുതലും എന്താ പറയുക വീട്ടുകാരോട് തന്നെയാണ് കാരണം നമുക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ വീട്ടുകാർ തന്നെയാണ് അപ്പോൾ അവര് എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് നമ്മള് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ അവർക്കും സന്തോഷമാകും അതുപോലെ നമ്മുടെ വീട്ടില് എപ്പോഴും സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനുതന്നെയാണ് നമ്മൾ കൂടുതലും വില കൊടുത്ത് വരുന്നത് അപ്പോൾ എന്താ പറയുക സന്തോഷമായിക്കോട്ടെ സങ്കടമായിക്കോട്ടെ എന്തായാലും നമ്മുടെ വീട്ടുകാരോടൊപ്പം പങ്കിടുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് അപ്പോൾ അവര് പറയുന്ന വാക്കിനും ഇതിനുമൊക്കെയാണ് നമ്മള് കൂടുതലും വില കൽപിക്കുന്നത് കാരണം അവർ നമ്മളോട് പറയുന്നതെല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടി മാത്രമായിരിക്കും നമുക്ക് എന്താ പറയുക മോശമായിട്ട് ഒന്നും വരാൻ വേണ്ടീട്ട് ആഗ്രഹിക്കാത്ത ഒരേ ഒരു വ്യക്തി നമ്മുടെ വീട്ടിലുള്ളവർ അതായത് മാതാപിതാക്കൾ ഒക്കെ ആയിരിക്കും അപ്പോൾ അവർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതേ വരൂ എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ അവര് എന്തൊക്കെ പറയുന്നു അതിന് നമ്മൾ വില കൽപ്പിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൽ പരം നല്ലൊരു കാര്യം വേറെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് തന്നെയാണ് എനിക്ക് ഞാൻ കൂടുതലായിട്ടും എൻ്റെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം എൻ്റെ ജീവിതത്തിന് ഞാൻ ഏറ്റവും കൂടുതൽ വിലകല്പിക്കുന്നത് എൻ്റെ കുടുംബക്കാര് അതായത് എൻ്റെ വീട്ടില് അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ എൻ്റെ വീട്ടുകാരാണ് കൂടുതലായിട്ടും പറയുന്നതാണ് ഞാൻ വില കൽപ്പിക്കാറുള്ളത്